പാചകം എന്ന് തുടങ്ങി എന്ന് ചോദിച്ചാൽ അതിനൊരു മറുപടി തന്നെ പറയാൻ ബുദ്ധിമുട്ടാണ് ഞാൻ എന്താ ശരിക്കും അറിവാകുന്നതിന് മുമ്പ് തന്നെ പാചകം ചെയ്യാൻ തുടങ്ങിയൊരാളാണ് എന്താണെന്ന് ചോദിച്ചാൽ കുട്ടിയായിരിക്കുമ്പം തന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ അറിയാം ഇപ്പം ദോശ ചുടുക അല്ലെങ്കിൽ അപ്പം ചുടുക അങ്ങനെയൊക്കെ ചെറുതിലെ തന്നെ ചെയ്യാറുണ്ടായിരുന്നു അപ്പം പാചകം എന്ന് പറഞ്ഞാൽ അതൊരു ശരിക്കൊരു കലയാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് ഞാൻ വളരെയധികം ആസ്വദിച്ച് ചെയ്യുന്നൊരു കാര്യം കൂടിയാണ് പാചകം കൂടാതെ ഒരു കാര്യമുണ്ട് ഞാൻ ആദ്യമായിട്ട് എനിക്ക് പാചകത്തിൽ എനിക്ക് ആ നമ്മൾ അരി വറുത്ത് പൊടിക്കുമല്ലോ അരി ഇങ്ങനെ പുട്ടിനൊക്കെ പൊടിച്ച് വെക്കുമല്ലോ അപ്പം എനിക്കുണ്ടായൊരു അനുഭവമാ ഞാൻ ഈ അരി ഇങ്ങനെ പൊടിച്ചു അരി പൊടിച്ചിട്ട് ആ പൊടി ഇങ്ങനെ വറുത്താണ് പുട്ടിന് എടുക്കേണ്ടതെന്ന് എനിക്കറിയില്ല അപ്പം ഞാൻ ആ അരി ഇങ്ങനെ പൊടിച്ചു ഒരു ഇതിൽ കവറിൽ ഇട്ടിങ്ങനെ പൊതിഞ്ഞ് അങ്ങ് വച്ചു അപ്പം അപ്പം പിറ്റേ ദിവസത്തേന് വീട്ടിൽ ഇങ്ങനെ കപ്പ വാങ്ങിച്ചുകൊണ്ട് വന്ന് ആ അപ്പം പിറ്റേ ദിവസം കപ്പപ്പുഴുക്കായിരുന്നു അപ്പം രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ അരിപ്പൊടി എങ്കിൽ പുട്ട് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പം വീട്ടിൽ പറഞ്ഞു ഞാൻ ഇങ്ങനെ അരി പൊടിച്ചു വച്ചിട്ടുണ്ട് നമുക്ക് പുട്ടുണ്ടാക്കാം എന്നൊക്കെ അപ്പം പുട്ടിൻ്റെ പൊടിയെടുത്ത് നോക്കുമ്പോൾ എന്താ അതിങ്ങനെ പൂത്തിരിക്കുകയാ പൂപ്പലായി ഈ പുട്ടിൻ്റെ പൊടി വറുത്തിട്ടാണ് അത് ഇതിനെ സൂക്ഷിച്ച് വയ്ക്കേണ്ടേന്ന് എനിക്കറിയില്ല ഞാൻ ആ പൊടി പൊടിച്ച അതുപടുതിയില് ഈ പുട്ടിൻ്റെ പൊടി സൂക്ഷിച്ചതുകൊണ്ട് അത് പൂപ്പല് കയറി അത് അമ്മ അമ്മയതെന്നിട്ട് ദൂരെ കളഞ്ഞു അത് ഇനി കൊള്ളില്ല അത് ഉപയോഗിക്കേണ്ട അപ്പം എന്നിട്ടമ്മ പറഞ്ഞു ആ ഇങ്ങനെ നമ്മൾ അരി പൊടിച്ചിട്ട് അത് വറുത്ത് സൂക്ഷിക്കണം അങ്ങനെയാണ് നമ്മൾ പുട്ടിന് ഇടിയപ്പത്തിന് ഒക്കെ ഉപയോഗിക്കുന്നത് കൊഴുക്കട്ട ഉണ്ടാക്കാൻ ഒക്കെ അല്ലാതെ വറുക്കാതെ നമ്മൾ അരിപ്പൊടി ഉപയോഗിക്കാൻ പറ്റുകേല എന്ന് പറഞ്ഞു അപ്പം എനിക്ക് അത് ഞാനത് ഇപ്പോഴും ഓർക്കും അരി പൊടിക്കുമ്പം കാരണം കൊച്ചിലേ ഇങ്ങനെ അറിയാതെ അരിപ്പൊടി ഇങ്ങനെ സൂക്ഷിച്ചത് എനിക്ക് ഇപ്പോഴും ഞാൻ ചിലപ്പം ഓർക്കാറുണ്ട് പിന്നെ വേറൊരു അനുഭവം എന്താണെന്ന് ചോദിച്ചാൽ ഈ പാചകമെന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും എന്താ പറയുക അത് നമ്മൾ നമ്മുടെ വീട്ടിലുള്ളവർക്ക് ഇപ്പം നമ്മുടെ വീട്ടിലുള്ള അമ്മ അച്ഛൻ അല്ലേ ഭർത്താവ് അല്ലേ കുട്ടികൾ അവർക്കൊക്കെ നമുക്ക് നമ്മൾ നമുക്കെന്താ പറയുക നമ്മൾ ഇപ്പം വൈകീട്ട് കുട്ടികൾ വരുമ്പോഴൊക്കെ അയ്യോ അവർ വിശന്ന് വരുകയാണ് നമ്മളുടെ ഒരു സ്നേഹം കൂടെ അതിൻ്റെ കൂടെ നമ്മൾ ചേർക്കുകയാണ് ഇപ്പം എന്താണെന്ന് ചോദിച്ചാൽ അയ്യോ എൻ്റെ കുട്ടിക്ക് ഇഷ്ടമാണ് ദോശ അല്ലെങ്കിൽ അവന് ഇഷ്ടമാണ് ഇപ്പം ഇഡലി അല്ലേ അവന് ഇഷ്ടമാണ് ചപ്പാത്തി അങ്ങനെ നമ്മൾ അങ്ങനെ അപ്പം പാചകം എന്ന് വച്ചാൽ അത് നമ്മൾ ഇപ്പം നമ്മുടെ ജീവൻ നിലനിർത്താൻ മാത്രം അല്ലല്ലോ നമ്മൾ ആഹാരം കഴിക്കുന്നത് നമ്മൾ ആഹാരം കഴിക്കുന്നത് നമ്മുടെ എന്താ പറയുക നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ വിശപ്പിന് വേണ്ടിയിട്ട് ഒക്കെയാണ് എന്താണെന്ന് ചോദിച്ചാൽ പാചകം എന്നെ സംബന്ധിച്ച് വളരെയധികം ആസ്വദിച്ച് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് എല്ലാവർക്കും വേണ്ടി അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിന് വേണ്ടി അത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടെയാണ്